ഞാൻ മണ്ണാർക്കാട് നിന്നാണ് വിളിക്കുന്നത് എനിക്ക് മൂന്ന് പേർക്കുള്ള ഭക്ഷണമാണ് ഓർഡർ ചെയ്യേണ്ടത് മണ്ണാർക്കാട് കുലിക്കിളിയാട് ഭാഗത്തേക്കാണ് ഡെലിവറി ചെയ്യേണ്ടത് മൂന്നു പേർക്കുള്ള ബിരിയാണി ആണ് വേണ്ടത്